ഞാനൊരു അഡ്വർടൈസ്മെൻ മെൻ്റ് ചെയ്തിരുന്നു ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെന്റ് ചെയ്തിരുന്നു കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ആ സമയത്ത് അഡ്വർടൈസ്മെന്റ് ചെയ്ത് വീടുകളിൽ കൂടി അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ഒരു വി ഒരു കസ്റ്റമർ ഒരു പ്രൊമോട്ടർ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് നിന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്തപ്പോൾ ആ വീട്ടുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് അവരോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞ് അതിൻ്റെ ലീഡർ ആരാച്ചാൽ അവരോട് വരാൻ പറഞ്ഞ് അങ്ങനെ അവിടെ വിളിച്ച് വരുത്തി അങ്ങനെ ഞാനന്നിട്ട് അവിടെ പോയി അവർ അവിടെ നിന്ന് പോന്ന് മറ്റേ പ്രൊമോട്ടേഴ്സ് ഞാനവിടെ പോയി അവിടെ പോയപ്പോൾ ഒരുപാട് ആണുങ്ങൾ പിന്നെ ആണുങ്ങളവിടെ വന്ന് എന്നെ ചീത്ത പറയുകയൊക്കെ ചെയ്ത് ഞാനതിൻ്റെ ലെറ്ററും കാര്യങ്ങളുമൊക്കെ കാണിച്ച് കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പോലീസ് വന്ന് പോലീസുകാർക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാ ഈ ഇതിൻ്റെ ലെറ്ററും കാര്യങ്ങളും അഡ്വർടൈസ്മെന്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ മനസ്സിലാക്കി അവിടെ നിന്ന് തിരിച്ച് പോന്നത് അങ്ങനെയൊരു വെല്ലുവിളി നേരിട്ടെനിക്ക്